കന്നുകാലികളുണ്ടെങ്കിൽ രാവിലെ നമ്മൾ അഞ്ച് മണിക്ക് തന്നെ എണീക്കണം എണീറ്റ് നമ്മളൊരു കട്ടൻ ചായ ഇട്ട് കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ തൊഴുത്തിലോട്ട് കയറിയാൽ രാവിലെ എന്നാ ചാണകം വടിക്കണം പിന്നെ പശുവിനെ കുളിപ്പിക്കണം പിന്നെ പശുവിനെ കറക്കണം പശുവിൻ്റെ കറവ കഴിഞ്ഞ് ഉടനെ തന്നെ അവർക്ക് കാലിത്തീറ്റ തിന്നാൻ കൊടുക്കണം കറവ കഴിയുന്ന പശുകൾക്ക് പെട്ടെന്നൊരു ക്ഷീണമുണ്ടാകുമല്ലോ അപ്പം ആ ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പശുകൾക്ക് ആദ്യമേ തന്നെ കാലത്തീറ്റ കൊടുക്കുന്നു അതു കഴിഞ്ഞിട്ട് നമ്മൾ ഈ പാല് ബാക്കി നമ്മൾ സൊസൈറ്റിയിൽ കൊടുക്കാൻ ഉള്ളതാണിങ്ങനെ നമ്മളതിൻറ്റേതായ കാര്യങ്ങൾ നോക്കുന്നു അത് കഴിയുമ്പോഴത്തേനും പിന്നെ ആ കാലത്തീറ്റ തിന്ന് കഴിയുമ്പോഴത്തേനവർക്ക് ദാഹിക്കുമല്ലോ കാലിത്തീറ്റ ഉണങ്ങിയിരിക്കുന്ന സാധനമാണല്ലോ അപ്പോൾ

അതു കഴിഞ്ഞ് പിന്നെ ഇതുങ്ങൾക്ക് നാലു പേർക്ക് വെള്ളം ചൂടാക്കി കൊടുക്കണമെങ്കിൽ തന്നെ ഒരിഞ്ഞ പണിയാണല്ലോ അപ്പം വെള്ളം കൊടുക്കണം വെള്ളം കൊടുത്തു കഴിഞ്ഞ് അത് പിണ്ണാക്ക് തിളപ്പിച്ച് ഇട്ടിട്ട് വേണം വെള്ളം കൊടുക്കാനായിട്ട് പിണ്ണാക്കും കഞ്ഞിയും കൂടി ഇട്ടു തിളപ്പിച്ച് വേവിച്ചിട്ട് അത് കൂട്ടിയാണല്ലോ നമ്മൾ വെള്ളം കൊടുക്കുന്നത് അപ്പം വെള്ളം കൊടുക്കണം അതു കഴിഞ്ഞിട്ടതുങ്ങൾക്ക് പുല്ല് കൊടുക്കണം പുല്ല് അപ്പോഴത്തേനൊരു പത്ത് മണിയൊക്കെ ആകാറാകുമല്ലോ അപ്പം ആ സമയത്ത് ഇതുങ്ങളങ്ങ് കിടന്നങ്ങോട്ടലറാൻ തുടങ്ങും പശുക്കളെ അപ്പം ആ സമയത്ത് നമ്മൾ പുറത്ത് പോകണം പുല്ല് പറിച്ച് കൊടുക്കാനായിട്ട് നമ്മൾ പുല്ലിന് പോകുന്നു ഇതിനിടക്ക് നമ്മളടുക്കള കാര്യങ്ങളും കൂടി നോക്കണ്ടേ നമ്മൾ അപ്പം പുല്ല് പറിച്ച് കൊടുക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്ത് പുല്ലും കൊടുത്തു കൊണ്ടു വന്ന് അപ്പോഴത്തേനൊരുച്ചയാകും ഉച്ചയായിട്ട് വന്നു കഴിയുമ്പോഴത്തേനവർക്കറിയാം നമ്മൾ വരുന്ന സമയം കാര്യങ്ങളും എല്ലാ പിന്നെ ഉച്ചക്ക് നമ്മൾ വെള്ളം കൊടുക്കണം നല്ല വേനൽക്കൊക്കെ പച്ചവെള്ളം കൊടുത്താൽ മതി അവരത് വലിച്ച് കുടിച്ചോളും അതു പോലെയാണെങ്കിൽ കുഞ്ഞ് കിടാക്കൾ ഈ കറക്കുന്ന പശുക്കൾക്കെന്തായാലും കുഞ്ഞ് കിടാക്കളുണ്ടല്ലോ അവരെ കുടിപ്പിക്കണം അവർക്കും എന്നാ കുടിപ്പിക്കണം അതു കഴിയുമ്പം അവരെ പിടിച്ച് കെട്ടണം ഈ വെയിലായിക്കഴിയുമ്പം വരെ കുളിപ്പിക്കണം അവരെ തള്ളമാരുടെ അടുത്തു നിന്ന് മാറ്റി കെട്ടണം അങ്ങനെ എങ്ങനെയാണെന്നു പറഞ്ഞാലൊരു രണ്ട് പേരുടെ മെനക്കേട് ഡെയ്ലി ഉണ്ടാകും ഇതെല്ലാം കഴിഞ്ഞു നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വന്നു കഴിയുമ്പോഴത്തേനും പിന്നെ മൂന്ന് മണിയാകാറാകും മൂന്ന് മണിയാകാറാകുമ്പം വീണ്ടും ഈ ചാണകം വടിക്കണം തൊഴുത്തു വൃത്തിയാക്കണം പുല്ലു കൊടുക്കണം പുല്ലില്ലാത്ത സമയത്താണെങ്കിൽ കച്ചി നമ്മൾ കാശ് കൊടുത്ത് വിലക്കു മേടിച്ച് നമ്മളിവർക്ക് കൊണ്ടു കൊടുക്കണം തിന്നാനായിട്ട് അതു പോലെ വെള്ളത്തിൻ്റെ വേനൽക്കാലമാകുമ്പോൾ വെള്ളത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് പക്ഷെ കുളിപ്പിക്കാനും ബുദ്ധിമുട്ട് ഇതിനിടയ്ക്ക് എന്നാ കറവയിൽ എന്തെങ്കിലൊരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടേ അപ്പം തന്നെ അകിടിൻ്റെ പ്രശ്നങ്ങളായി അതിന് പിന്നെ ഡോക്ടറെ വിളിക്കലായി ഇഞ്ചക്ഷനെടുക്കലായി അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർക്ക് തീറ്റയും കൊടുത്തു നേരം വെളുത്ത് നമ്മൾ പുല്ല് ചെത്താൻ നമ്മുടെ പറമ്പിലില്ലെങ്കിൽ പോലും നമ്മൾ അടുത്ത പറമ്പിൽ നിന്നാണെങ്കിലും പോലും പുല്ല് ചെത്തിക്കൊണ്ടു വരണം അത് ഒരു കെട്ട് പുല്ലൊന്നും പോരല്ലോ നമ്മളൊരു നാല് പശുവുണ്ടെങ്കിൽ നാല് കെട്ട് പുല്ല് പോര ഒരു ദിവസം അപ്പം അത് ചെത്തി വെക്കാനായിട്ട് രണ്ടു പേർ ഒരാൾ ചെത്തുന്നു ഒരാൾ കൊണ്ടു പോയിടുന്നു അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മളടുക്കും ചിട്ടയായിട്ട് ഡെയ്ലി ചെയ്യുന്ന കാര്യങ്ങൾ ഡെയ്ലി അതാത് സമയത്ത് മാത്രം ചെയ്താലേ നമുക്ക് ഓരോ ദിവസവും അതാ കൃത്യ സമയത്ത് തന്നെ തള്ളി നീക്കിക്കൊണ്ട് പോകാനായിട്ട് പറ്റുകയുള്ളൂ അപ്പം ഇതെനിക്ക് കുട്ടികൾ സ്കൂൾ വിടണമെങ്കിലവരുടെ കാര്യങ്ങൾ നോക്കണം അവർ വരുമ്പം അവരുടെ കാര്യങ്ങൾ നോക്കണം തന്നെയുമല്ലാ അവർക്ക് സമയത്ത് ഭക്ഷണം കൊടുക്കണം ചോറ് കൊണ്ട് പോകാനുള്ളതുണ്ടാക്കി കൊടുക്കണം അപ്പം ഇത് എല്ലാ കാര്യങ്ങളും നമ്മളിതിങ്ങനെ റെഗുലറായിട്ടിങ്ങനെയങ്ങ് ചെയ്തു പോകും ഇതിനിടക്കൊരു പശു എന്നാ കുത്തി വെപ്പിച്ച് ചെനപ്പിടിച്ചിട്ട് ഒൻപത് മാസം തുടങ്ങുന്ന മുതൽ തന്നെ നമുക്ക് വീട്ടിലുള്ളവർക്കുറക്കമെന്നു പറയുന്നതില്ല കാരണം ഇതെപ്പോഴാണ് സംഭവിക്കുന്നത് അവരുടെ പ്രസവമെപ്പോഴാണ് പ്രസവമെപ്പോഴാണെന്നു നമ്മൾ നോക്കി ഒരു ഒൻപത് മാസം കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാനേ പറ്റില്ലിപ്പം ഇപ്പം പെറു പ്രസവിക്കു ഇപ്പം പ്രസവിക്കുമെന്നും പറഞ്ഞതു കൊണ്ട് നമ്മളിങ്ങനെ നോക്കി നോക്കി ഇരിപ്പാണ് അപ്പോൾ ചിലപ്പം രാത്രിക്കൊക്കെയാണ് പശു പ്രസവിക്കുന്നെങ്കിൽ നമുക്ക് വല്ലാത്ത കഷ്ടപ്പാടാണ് പിന്നെ അതിൻ്റെ മറുപിള്ള പിറക്കുന്നിടം വരെ നമ്മളുറക്കം അളച്ചിരിക്കണം അതവർ തിന്നരുതെന്നാണ് പറയുന്നത് തിന്നിട്ടുണ്ടെങ്കിൽ പശുവിന് കേടാണ് പാലുണ്ടാകില്ല പാല് കിട്ടില്ലയെന്നൊക്കെയാണ് പറയുന്നു അപ്പം അത് കൊണ്ടത് പോകുന്നിടം വരെ നമ്മൾ നോക്കിയിരുന്നത് മാറ്റി കളഞ്ഞിട്ട് വേണം നമുക്ക് രാത്രിക്കാണെങ്കിൽ ഒന്നു കിടക്കാൻ വേണ്ടിയിട്ട് അതു പോലെ തന്നെ പശു പ്രസവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലതിൻ്റെ നടുവിനെല്ലാം നമ്മൾ പുറത്തൊക്കെ നല്ല ചൂട് വെള്ളത്തിനകത്ത് തുണി മുക്കി ചൂട് വെച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യും പിന്നെ പിന്നെ കുട്ടി വരുന്ന ഭാഗമുണ്ടല്ലോ പശുവിൻ്റെ പുറക് വശം അവിടെ നമ്മൾ അയഡിൻ തൂത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യിപ്പിച്ചവർ കിടക്കുകയൊക്കെ ചെയ്യുമ്പം കണ്ടണ്ക്കളൊക്ക നമുക്കാരും നമ്മളെപ്പോഴും തൊഴുത്തൊക്കെ വൃത്തിയാക്കി ഇട്ടാലും എപ്പോണ് അണുക്കളുടൊരു ശല്യം വരുന്നതെന്നു നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പം അത് അങ്ങനെ പശുവിൻ്റെ പുറകിലാണെങ്കിലും നമ്മൾ അയഡിനൊക്കെ തൂത്ത് പെറുക്കി അത് അങ്ങനെയെല്ലാ അവിടെയെല്ലാം വൃത്തിയാക്കും പിന്നെയീ കുഞ്ഞ് കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൊക്കിൾക്കൊടിയിൽ കൂടി ഇൻഫെക്ഷ്നാകും അങ്ങനെ ഇൻഫെക്ഷ്നാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പണ്ടൊക്കെ നമ്മൾ ചാരം ഇടുമായിരുന്നു അടുപ്പിൽ നിന്നു വരുന്ന ചാരം ഇട്ടിട്ടുണ്ടെങ്കിലിൻഫെക്ഷൻ ഉണ്ടാകാതെ അത് ഉണങ്ങി അങ്ങനങ്ങ് പൊഴിഞ്ഞു പോകുമായിരുന്നു ഇപ്പം ചാരമിടരുതെന്നു പറയുന്നത് കൊണ്ടത് പൊക്കിൾക്കൊടിയുടെ അറ്റം ഒരു നൂലിട്ട് കെട്ടി വെക്കണം ഉള്ളത് അല്ലെങ്കിലുള്ളിലേക്ക് ഇൻഫെക്ഷനാകുന്നു പറഞ്ഞു കൊണ്ടിപ്പുള്ള പുതിയ രീതിയാണ് നൂലിട്ട് കെട്ടി വെക്കുന്നത് ആ എന്നിട്ട് അങ്ങനെ കെട്ടി വെക്കും അഥവാ പൊക്കിൾക്കൊടിയിൽ കൂടി പഴുപ്പ് കയറിയിട്ടുണ്ടെങ്കിലീ കുഞ്ഞുങ്ങൾക്ക് സംഭവിച്ചിത് ഞങ്ങളുടെ മുട്ടിൻ്റെ ഭാഗം ഇങ്ങനെ അങ്ങോട്ട് പഴുത്ത് തൊലി പോയിട്ട് പഴുത്ത് പൊട്ടിയിട്ട് ഇതുങ്ങൾക്ക് നടക്കാനും പറ്റില്ല കിടക്കാനും പറ്റില്ല അങ്ങനത്തൊരവസ്ഥയിലോട്ടാണ് മാറുന്നത് അതു കൊണ്ട് നമ്മൾ ഒക്കെ കന്നുകാലിയുണ്ടെങ്കിൽ നമ്മുടെ പൂർണ്ണമായ ശ്രദ്ധയെപ്പോഴും അവരുടെ അടുത്തു വേണം ഇവർക്ക് ഇതൊരു ചെറിയൊരു മാറ്റങ്ങൾ പോലും നമുക്കത് പെട്ടെന്നു തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു എപ്പോഴും ഉഷാറായിട്ടിരിക്കുന്നൊരു പശുവിന് എന്തെങ്കിലൊരു മേലധികാരികൾ വന്നാൽ ചിലപ്പോഴീ പ്രസവമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനവർക്ക് ചെറിയ പനിക്കോളൊക്കെ കാണും അപ്പം ഇങ്ങനെ രോമങ്ങളൊക്കെ എഴുന്നിങ്ങനെ നിൽക്കുകയും എല്ലാം ചെയ്യും അപ്പം അതെല്ലാം നമ്മൾ പ്രത്യേകിച്ച് പെട്ടെന്നു തന്നെ കണ്ടു പിടിച്ച് ഡോക്ടറുടെ സേവനം ചെയ്യേണ്ട ഇടത്ത് ഡോക്ടറുടെ സേവനം ചെയ്യാനുമെല്ലാം ചെയ്യണം അതു പോലെ തന്നെ നമ്മൾ ഈ അകിട് വീക്കം വരാതിരിക്കാനായിട്ട് വളരെയേറെ ശ്രദ്ധിക്കാനുണ്ട് കറവ കഴിയുമ്പം തന്നെ മറ്റേ ഈ നാല് മുലക്കമ്പുകളും നമ്മൾ അയഡിനകത്തു മുക്കി ഇങ്ങ് ടാലി പിന്നെ ഇവർ കിടക്കുമല്ലോ ഈ പശുക്കൾ സംബന്ധിച്ചിടത്തോളം നമ്മളീ കറവ കഴിയുന്നത് ഇവർക്ക് കാലിത്തീറ്റയതു ഇതും തിന്നാൻ കൊടുക്കുന്നതിൻ്റ ഉദ്ദേശം മെയിനുദ്ദേശമെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കറവ കഴിയുമ്പോഴുള്ള ഈ ഇവരുടെ മുലക്കാമ്പ് തുറന്നിരിക്കുന്നതു തന്നെയാണ് ഭാഗം വെച്ചിവർ കിടന്നിട്ടുണ്ടെങ്കിലതിലൂടെ അണുബാധ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവർ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളീ കാലത്തീറ്റ ആദ്യമേ തന്നെ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും നമുക്ക് എന്നാ ഡെയ്ലി പശു ഉണ്ടെങ്കിൽ തന്നെ ഡെയ്ലി പണിയാണല്ലോ അപ്പം ഇതിപ്പുപയോഗിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു മനുഷ്യനെ കൊണ്ട് പോലും ഒരു പശുവിനെ കൃത്യമായിട്ട് അതിൻ്റെ സമയത്തുള്ള കാര്യങ്ങൾ നടത്താനും എല്ലാം കൂടി പറ്റില്ല അപ്പം രണ്ട് പേര് മെനക്കെട്ടാൽ മാത്രമാണ് ഒരു പശുവിൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു പോകുകയുള്ളൂ ഇതിനിടക്ക് പുല്ലില്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വൈക്കോൽ വില കൊടുത്ത് വാങ്ങിക്കണം എല്ലാറ്റിനും വിലയല്ലേ ഇപ്പോൾ നമുക്ക് എല്ലാ കാര്യത്തിലും വില കൊടുത്തു നമ്മളോരോ കാര്യങ്ങൾ ചെയ്യേണ്ടതു കൊണ്ട് നമ്മളിങ്ങനെ കൃത്യമായിട്ടതിൻറ്റേതായ രീതിക്കു അതിൻറ്റേതായ അളവിനും കാര്യങ്ങൾക്കും കൊടുത്താൽ മാത്രമേ എല്ലാ കാര്യ